ഒൻപത് ലക്ഷത്തി അൻപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ അ നൂറ്റി എഴുപത് രൂപ അഞ്ച് ലക്ഷത്തി ആറായിരത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ ഒരു ലക്ഷത്തി നാൽപ്പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ പിന്നെ പത് പത്ത് ലഷ് പത്ത് പ ഒൻപത് ലക്ഷത്തി അൻപത്ത അൻപത്തൊൻപതിനായിരത്തി ഒരുനൂറൂ രൂപ